ഞാൻ ഫ്ലിപ്പ്കാർട്ടീന്നൊരു ബെഡ് ഷീറ്റ് വാങ്ങിയിരുന്നു അതിൻ്റെ ക്വാളിറ്റി വളരെ മോശമായിരുന്നു അതിൻ്റെ മെറ്റീരിയൽ അവര് പ്രിസ്ക്രൈബ് ചെയ്തിരുന്ന മെറ്റീരിയലല്ലായിരുന്നു കിട്ടിയത് സോ കിട്ടുമ്പോൾ ഒരു ഡിഫറെൻ്റായിട്ടുള്ള മെറ്റീരിയലാ മെറ്റീരിയൽ ഉള്ള ഡ്രസ്സ് ആയിരുന്നു കിട്ടിയത്